നമ്മൾ സാധാരണ മത്സ്യബന്ധത്തിന് പോകുമ്പോൾ കൊണ്ടു പോവുന്ന ഉപകരണങ്ങളെന്നു വച്ചാൽ വല ചൂണ്ട പിന്നെ അത് പിടിച്ചു ഇടാനുള്ള കുറച്ചു പാത്രങ്ങൾ പാത്രങ്ങൾ മീൻസ് വലിയ ഫ്രീസറ് പോലത്തെ സംഭവങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പം ബോട്ടിൻ്റെ ഇടയ്ക്ക് ബോട്ടിൽ തന്നെ ആധുനികമായിട്ടുള്ള ബോട്ടുകളാണല്ലോ അപ്പം അതിൻ്റകത്ത് തന്നെ നമുക്ക് വലിയ അറകളും ഫ്രീസറും അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു കുറച്ചു എന്നല്ല കുറേ മുന്നേ ഉണ്ടായിരുന്നത് വലകളും ചൂണ്ടകളൊക്ക തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് കാരണം ചൂണ്ട നമുക്ക് പലതരത്തിലുള്ള ചൂണ്ടകൾ എന്നാൽ അവൈലബ്ൾ ആണ് മെഷിൻസും എല്ലാം നമുക്ക് എളുപ്പകരമായിട്ടുള്ളതാണ് നേരത്തെ എന്നു വച്ചാൽ നമ്മൾ വലിച്ചു വലിച്ചു എല്ലാം കയറ്റണം ഇത് മിഷിൻ വച്ചു നമുക്ക് വല വലിക്കാൻ വരെ മെഷീനായി പിന്നേ ബോട്ട് ഒക്കെ നമുക്ക് സ്പീഡ് ബോട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട് മോട്ടറ് വച്ചോടുന്ന നേരത്തേ എല്ലാം തുഴഞ്ഞു തുഴഞ്ഞു പോകുന്നതായിരുന്നു പണ്ടേത്തതും ഇപ്പോൾ എന്നും ഭയങ്കര വ്യത്യാസം ഉണ്ട് ആധുനികമായിട്ട് വന്നതെല്ലാം ആധുനിക ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കാരണം സ്പീഡ് ബോട്ട് മോട്ടറ് കാര്യങ്ങൾ പിന്നെ മീൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി റെഡാറ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചു നമുക്ക് മീനിനെ എവിടെ ഉണ്ടെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും എവ്ടെ വല ഇടണം എങ്ങനെ എന്നൊക്കെ പണ്ടത്തേതെന്നു വച്ചാൽ വല ഇട്ടു